ഹൈക്ക് ചെയ്യാൻ എനിക്കേറ്റവും കൂടുതലിഷ്ടപെട്ട പ്രദേശം എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന വനങ്ങളുള്ള പ്രദേശമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒളിച്ചുകളിക്കാനും കൂട്ടുകാരുമൊത്ത് അവിടെ വട്ടം കൂടിയിരുന്ന് എന്തെങ്കിലും വൈകുന്നേരത്തെ ചായയോ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ സന്ധ്യാസ്തമനങ്ങളിൽ ഏറ്റവും കൂടുതലെന്നെ ആകർഷിക്കുക കിളികളുടെ കളകളാരവം ഈ കിളികളുടെ കരച്ചിലും മഴ പെയ്യുന്നത് അങ്ങനെത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും മഴ പെയ്യുമ്പോൾ കിളികൾ അവയുടെ കൂട്ടിലേക്ക് കൂടണയുന്നതും പിന്നെ അമ്മ കുഞ്ഞിക്കിളികൾക്ക് ആഹാരം കൊണ്ടുവന്നുകൊടുക്കുന്നതും പിന്നെ അവിടുത്തെ മഴയിൽ മണ്ണിൻ്റെ തീഷ്ണമായ ഗന്ധം പരക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇഷ്ടമാണ് പിന്നെ ഇടതൂർന്ന വനങ്ങളിലൂടെ നടക്കുമ്പോൾ അതൊരു പുതിയൊരു എന്താ പറയുക വളരെ മനസ്സിനത് വളരെയധികം സന്തോഷിക്കുന്നതായിരിക്കും പിന്നെ സൂര്യാസ്തമയം കാണാൻ നല്ലതായിരിക്കും വനങ്ങളുടെ ഉള്ളിലൂടെ നടക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വളരെയധികം മനസ്സിനെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കാനും അതിലെ നടക്കുമ്പോൾ നമുക്ക് വേറെ പലതും നമുക്കാലോചിക്കാനും മനസ്സിനൊക്കെയൊരു ഫ്രഷപ് ഫ്രഷാക്കാനും പുതിയൊരു ഉണർമ ലഭിക്കാനും നമുക്കത് സഹായകമാണ്